സൈക്കിൾ ഓടിക്കുമ്പോൾ എന്താ നമ്മൾ ബ്രേക്ക് ഉണ്ടോന്ന് നോക്കണം ഏറ്റോം ഇമ്പോർട്ടണ്ൻറ്റ് ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഏ എന്ത് എന്തിനോ ആയിക്കോട്ടെ സൈക്കിളിന് ബ്രേക്ക് ആണ് വേറൊന്നും വലിയ ഇതായിട്ട് ഇല്ല കാറ്റും ബ്രേക്കുമാണ് സൈക്കിളിന് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചെയിൻ ലൂസ് ആണോന്ന് നോക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മുടെ കയ്യിൽ വേണ്ടത് പൊല്യൂസ് പൊല്യൂഷൻ സർട്ടിഫിക്കേറ്റ് പൊല്യൂഷൻൻറ്റെ സർട്ടിഫിക്കേറ്റ് പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇമ്പോർട്ടൻറ്റ് ആണ് പേപ്പർ ബുക്കിൻറ്റെ അതായത് വണ്ടിടെ ബുക്കും പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കാറോടിച്ചാലും സ്കൂട്ടി ഓടിച്ചാലും ബൈക്ക് ഓടിച്ചാലൊക്കെ ഇത്രയും രേഖകൾ ഇമ്പോർട്ടൻറ്റ് ആണ് കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഇമ്പോർട്ടൻറ്റ് ആണ് പൊല്യൂസൻ പൊല്യൂഷൻ സർട്ടിഫിക്കേറ്റ് വേണം നമുക്ക് പിന്നെ ബുക്കും പേപ്പറും കാര്യങ്ങളുമൊക്കെ വേണം അതേപോലെതന്നെ ഇപ്പം എന്താ പറയാ കുറച്ചുംകൂടെ ഇതൊരുകണക്കിന് സുരക്ഷേനെ ബേസ് ചെയ്താണ് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരാ എന്താന്ന് അറിയണമെങ്കിൽ അയാളുടെ ഐ ഡി കാർഡോ അല്ലെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അങ്ങനെ അതുമല്ലെങ്കിൽ ആരു ആരും അറിയില്ല എന്താന്ന് അറിയില്ല എങ്ങനെയും അറിയില്ല ഒരാളെ വിളിച്ച് പറയാൻ അല്ലേൽ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു മാർഗോം ഉണ്ടാവില്ല സൈക്കിൾ ഓടിക്കുമ്പോൾ ആണെങ്കിൽ മക്കൾക്ക് ആണെങ്കിലും കൂടുതലും കൂടുതൽ ആൾക്കാർ സൈക്കിളിലോട്ട് പോവുന്നുണ്ടല്ലോ നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ലെ പിന്നെ നമുക്ക് ബ്രേക്ക് ഉണ്ടോ ഇറക്കത്തീന്ന് ബ്രേക്ക് ഒന്നുമില്ലെങ്കിൽ പോയില്ലേ എവിടെ എത്തുമെന്ന് വെച്ചിട്ടാണ് അതേപോലെ നമ്മൾക്ക് കാറ്റടിച്ച് ഓടിക്കുന്ന ഒരിതാണല്ലോ ഈ സൈക്കിൾ കാറ്റുണ്ടോന്ന് നോക്കണം പിന്നെ ചങ്ങല അതിൽ ചങ്ങല ഉണ്ടല്ലോ അത് ലൂസാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി